കേരളം എന്നാല് മലയാളം മലയാളം എന്നാൽ കേരളം ഇത് രണ്ടിനേയും നമ്മള് നമ്മക്ക് ഒരിക്കലും വേർതിരിക്കാൻ വേണ്ടി പറ്റില്ല പിരിക്കാൻ വേണ്ടി പറ്റില്ല അത്രമേൽ അടുത്ത ബന്ധമാണ് കേരളത്തിനും മലയാളത്തിനും ഉള്ളത് ഇന്ത്യയിൽ തന്നെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഉള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ച് കേരളം സംസാകാരികപരമായിട്ട് ഇത്രയും വൈവിധ്യങ്ങൾ ഉണ്ടാകാൻ കാരണം തന്നെ അതിൻ്റെ ഭാഷയായ മലയാളം ആണ് ഇന്ന് കാണുന്ന മലയാളം ഒരുപാട് മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലും തിരുത്തലുകളും എല്ലാം ചേർന്നുണ്ടായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന മലയാളം ഉണ്ടായിരിക്കണത് മുമ്പത്തെന്ന് പറയും ഈ മലയാളം ഉണ്ടായ ഭാഷകള് ദ്രാവിഡ തമിഴ് ഭാഷകൾ ചേർന്നിട്ടാണ് ഈ നമ്മുടെ മലയാളം ഉണ്ടായിരിക്കുന്നത് ദ്രാവിഡ ഭാഷാന്നൊക്കെ പറയാം അപ്പം അതില് നമ്മുടെ കവികള് എഴുത്തച്ഛൻ കുഞ്ചൻനമ്പ്യാര് വള്ളത്തോള് എന്നിവരാണ് ഇവര് മാത്രമല്ല മറ്റനേകം കവികള് അവരുടെ എല്ലാ സംഭാവനകളും അവരുടെ കൂട്ടിച്ചേർക്കലുകളും എല്ലാം കൂടിച്ചേർന്നിട്ടാണ് ഇന്ന് ഈ കാണുന്ന മലയാള ഭാഷയിലേക്ക് നമ്മള് ഇവിടെ എത്തിച്ചേരുന്നത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ പഴയ ഓരോ ലിപികളും കാര്യങ്ങളും പഴയ കൊട്ടാരങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ചുമരുകളിലും അതില് ഓരോന്ന് കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അതൊക്കെ നമ്മുടെ മുമ്പത്തെ സംസ്കാരവും നമ്മുടെ ആചാരങ്ങളും കാര്യങ്ങളും അതെല്ലാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ മുമ്പത്തെ കൊട്ടാരങ്ങള് പിന്നെ താളിയോലകള് നമ്മക്ക് നോക്കിയാൽ കാണാം അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളില് പോയാൽ കാവുകള് ഇതെല്ലം നമുക്ക് കാണാൻ പറ്റും അതില് കിട്ടുന്നോരോ തെളിവുകള് വച്ചിട്ടാണ് മുൻപ് മലയാളം എന്തായിരുന്നു മലയാളത്തിൻ്റെ ചരിത്രം എന്തായിരുന്നുന്നൊക്കെ കാണാൻ പറ്റീട്ടുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ഭാഗങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ടിട്ടാണ് ഇന്നീ കാണുന്ന രീതില് മലയാളത്തിനെ ലോകത്തിൻ്റെ നെറുകയിൽ നമുക്കിപ്പോൾ എത്തിച്ചിരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ലോകത്തെവിടെ പോയാലും ഒരു കേരളീയൻ ഉണ്ടാവും അപ്പം അവർക്കെല്ലാവർക്കും മലയാളം അറിയണം എന്നാണ് എൻ്റെ ഒരു നിലപാട് പക്ഷെ അങ്ങനെ അല്ല ഇപ്പോൾ വരുന്ന തലമുറക്ക് അവരുടെ അവരുടെ സ്കൂളിൽ ചേർക്കാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നമ്മൾ ചേർക്കുക അവിടെ മലയാളം സംസാരിച്ചാൽ തന്നെ അവരിനെ സ്കൂളില് ചീത്തപറയും ഫൈനടപ്പിക്കലും അങ്ങനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ ഓരോ ഓഫീസുകളിലായിക്കോട്ടെ കോളേജുകളിലും മലയാളത്തിനിപ്പോൾ മലയാളഭാഷയ്ക്ക് ചില വിവേചനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു വിവേചനം ഇല്ലാതെ മലയാളം അതിൻ്റെ പ്രൗഢതയോടെ തന്നെ തല ഉയർത്തി നിൽക്കണം എന്നാണ് ഓരോ കേരളീയനും ഓരോ മലയാളിയും അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത് അപ്പോൾ നമ്മുടെ സംസ്ക്കാരവും നമ്മുടെ പൈതൃകവും എല്ലാം കാത്ത് സൂക്ഷിക്കാൻ വേണ്ടീട്ട് നമ്മള് നമ്മുടെ മലയാള ഭാഷയെ നമ്മള് നെഞ്ചോട് ചേർക്കണം